ഒരു കളിയും മഹത്തരമായ കളിയിൽ നിന്നും മാറ്റിനിർത്തുന്നത് അതിൻ്റെ ആവേശങ്ങൾ തന്നെയാണ് കളിക്കാരെയും കാണികളെയും ഒരുപോലെ ആവേശം കൊള്ളിക്കുന്നത് ആവണം നല്ല കളികൾ ഏറ്റവും ആവേശം കൊള്ളിക്കുന്ന കാസർഗോഡിൻ്റെ വിനോദങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കബഡി കബഡി മാത്രമല്ല ഫുട്ബോൾ ക്രിക്കറ്റ് വോളിബോൾ എല്ലാം ഇതിൽ ഉൾപ്പെടുന്നതാണ് കളത്തിൽ ഇറങ്ങുന്ന പതിനാല് പേരെ മാത്രമല്ല ഇത് എഴുന്നേൽപ്പിച്ച് നിർത്തുന്നത് കാണുന്ന ഏവരെയും വലിപ്പച്ചെറുപ്പം ഇല്ലാതെ വാശി കയറ്റുന്നു അവസാനനിമിഷങ്ങൾ വരെ ആവേശത്തിൽ യാതൊരു മാറ്റവും വരുത്തുന്നില്ല അങ്ങനെയുള്ളതായിരിക്കണം ഒരു നല്ല കളി റൈഡറും ഡിഫൻഡറും തമ്മിലുള്ള വാശികൾ മാത്രമല്ല ആ കളത്തിൽ ചുറ്റും നടക്കുന്നത് കൂടാതെ കാണികളും അതിൻ്റെ ഭാഗമാവുകയാണ് ചെയ്യുന്നത് അപകടം പിടിച്ച കളികളിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒന്നാണ് കബഡി അതിൻ്റെ അന്താരാഷ്ട്ര തലങ്ങളിലേക്കും കബഡികളി മാറിക്കഴിഞ്ഞു എന്നതാണ് അവസാന ഹാഫ് ടൈം വരെ ശ്വാസമടക്കി നിൽക്കാൻ പറ്റാതെ ഓരോരുത്തനെയും നിർത്തുന്ന ഒരു വിനോദമാണ് കബഡി മരണക്കളി എന്നുതന്നെ തന്നെ നമുക്കിത് പറയാവുന്നതാണ് ജയിച്ചവനും തോറ്റവനും കണ്ണീരോടെ മടങ്ങുന്ന ഒരു കളി ചെറു കുരുന്നുകൾ മുതൽ പ്രായവ്യത്യാസം ഇല്ലാതെ ആസ്വദിക്കുന്ന അവസാനം കാണികളും കളത്തിന് പുറത്തുനിന്ന് ഓരോ ടീമിൻ്റെ കൂടെ കൂടി മഹത്തരം ആക്കുന്ന വിനോദം ഇത് വിനോദം മാത്രമല്ല ശാരീരികമായും സൗഹൃദങ്ങളുടെയും നാടുകളുടെയും അതിർവരമ്പ് തകർക്കുവാനും ഈ വിനോദത്തിലൂടെ സാധിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് കാസർകോടുകാർ കബഡിയെ നെഞ്ചോട് ചേർത്ത് വച്ചതും